ആ ഹലോ ആഹ് മാം ആ എന്റെ പേര് മിഥില ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്നേയ്ക്ക്

ഇരുപത്തൊമ്പത്

എന്റെ വീട് ചെറുതുരുത്തിയാണ് ആ മാം എനിക്ക് ഭയങ്കര ഡിപ്രെഷൻ ഉള്ളപോലെയാണ് എനിക്ക് തോന്നുന്നത് ഒന്നും ചെയ്യാതെ എനിക്ക് ഒന്നിലും ഒരു താത്പര്യം ഇല്ലാത്ത പോലെയാണ് എനിക്ക് എന്താ ഞാൻ കോളേജിൽ പോകുന്ന ഒരു വ്യക്തിയാണ് എനിക്ക് ഇപ്പോൾ ഞാൻ എന്റെ സ്റ്റഡീസ് റീയസ്യൂമ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് ഇപ്പോൾ ഇരുപത്തൊമ്പതാമത്തെ വയസ്സിൽ എനിക്ക് സ്റ്റഡീസ് റീയസ്യൂമ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽത്തന്നെ അതൊരു വളരെ വലിയ ആ കഷ്ടം പിടിച്ച ഒരു ഡിഫിക്കൽട്ടായിട്ടുള്ള ഡിസിഷൻ ആയിരുന്നു അത് എടുത്തതിന് ശേഷമാണ് എന്റെ ഫാമിലി അടുത്തുനിന്നെനിക്ക് സപ്പോർട്ടൊന്നും ഇല്ല വല്യ ഗതീല് അതിന്റൊപ്പം തന്നെ എനിക്ക് ഒരു ഫാമിലി ഉണ്ട് അപ്പോൾ ആ ഫാമിലീനെ നോക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ടൈം കണ്ടെത്തുക എന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒക്കെ എനിക്ക് വളരെ അധികം ബുദ്ധിമുട്ടാണ് അപ്പോൾ അതിന്റൊപ്പം തന്നെ എനിക്കിപ്പം പഠിക്കാൻ ഒത്തിരിയുണ്ട് പഠിക്കാൻ എനിക്ക് പണ്ട് മുതലേ വളരെ നല്ല ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവരുടെ സപ്പോർട്ടൊന്നും ഇല്ലാത്തതു കൊണ്ടും എന്റെ റെസ്പോൺസിബിലിറ്റീസ് കുറേ അധികം ഉള്ളത് കൊണ്ടും എനിക്ക് വളരെയധികം ബുദ്ധിമുട്ട് നേരിടേണ്ടി വരുകയാണ് അപ്പം എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത പോലെയാണ് തോന്നുന്നത് എനിക്ക് എന്റെ നേർക്ക് ഭയങ്കര പ്രെഷർ ഉള്ള പോലെയാണ് തോന്നുന്നത് എനിക്ക് എന്തൊക്കെയാണോ വരുന്നത് അതൊന്നും ഹാൻഡില് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തോന്നുകയാണ് ആ യെസ് മാം

ആ ഓക്കെ മാം ആ യെസ് മാം ഓക്കെ മാം ഓക്കെ മാം ഓക്കെ മാം ഓക്കെ മാം ഓക്കെ മാം ശരി മാം താങ്ക് യൂ മാം